ഞാനൊര ഞാനാരുടെയും അടുത്ത് പോയിട്ട് നൃത്തം പഠിച്ചിട്ടില്ല എന്നെ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളിപ്പം ഓരോ ഓരോ ഇപ്പം തിരുവാതിര അതുപോലെ മോഹിനിയാട്ടം പിന്നെ ഒപ്പന ആ അങ്ങനെയുള്ള കലാരൂപങ്ങള് നമ്മള് മത്സരിച്ചിട്ടുണ്ട് അപ്പം ഞാനീ ഇതുപോലെ ഇപ്പോൾ എൽ കെ ജി യിലോ യു കെ ജി യിലൊക്കെ പഠിക്കുമ്പോൾ തിരുവാതിരയ്ക്കും അതുപോലെ ഒപ്പനയ്ക്കൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ സാറ് വന്നിട്ട് നമ്മളെ സ്കൂളിൽ നിന്നും പഠിപ്പിക്കുവായിരുന്നു അങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലാതെ ഫീസ് കൊടുത്ത് നൃത്തം പഠിക്കാൻ പോയിട്ടില്ല അപ്പോൾ തിരുവാതിര പോലുള്ളത് ഞാന് പഠിച്ചിട്ടു ഉണ്ട് സാറ് പഠിപ്പിക്കുന്നത് പഠിച്ചിട്ട് ഉണ്ട് സ്റ്റേജില് അവതരിപ്പിച്ചിട്ടും ഉണ്ട് അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴും എട്ടാം ക്ലാസിൽ പഠിക്കുമ്പോൾ ഒക്കെ നമ്മള് സ്കൂളിൽ ടീച്ചർ അല്ലെങ്കിൽ കുട്ടികളെ നമുക്ക് നൃത്തം പഠിപ്പിച്ച് എന്നിട്ട് അതുപോലെ സ്റ്റേജിൽ അവതരിപ്പിക്കാം സിനിമാറ്റിക് ഡാൻസ് പിന്നെ കുച്ചിപ്പുടി ആ രീതിയിലുള്ള ഒര് കുച്ചിപ്പുടി പോലുള്ള നൃത്തങ്ങള് പരിശീലിച്ചിട്ടുണ്ട് പക്ഷേ ഒരു സ്റ്റേജിലൊന്നും കളിച്ചിട്ടില്ല ഇങ്ങനെ കണ്ട് പഠിക്കുവായിരുന്നു അങ്ങനെ അത്തരം നൃത്തരൂപങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഫീസ് കൊടുത്തിട്ടൊന്നും അല്ല പോയി പഠിച്ചത് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഇപ്പം സംവിധാനം ചെയ്തോന്ന് ചോദിച്ചാല് ഞാനിപ്പം സിനിമാറ്റിക് ഡാൻസൊക്കെ ചെയ്യുമ്പോൾ ഓരോ ഇപ്പോൾ ഡാൻസിലെ ചില സ്റ്റെപ്സൊക്കെ സ്വന്തായിട്ട് ഉണ്ടാക്കാറുണ്ട് പിന്നെ അതുപോലെ വീട്ടിൽ നിന്നൊക്കെ പാട്ടൊക്കെ വെച്ചിട്ട് നൃത്തം ചെയ്യാറുണ്ട് അതൊക്കെ സ്വന്തമായിട്ടു ചെയ്യുന്നതാണ്